ഇന്ത്യയിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലേറെ ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം ഒരു ചെറിയ ജോലി ലഭിക്കുകയെന്നുള്ളതാണ് അവരുടെ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം അവരെല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ജോലി ലഭിക്കണമെന്നും അതനുസരിച്ച് അവർക്ക് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ മുൻതലമുറയെക്കാളുപരി വളരെ അടിച്ചുപൊളി ജീവിതം നയിക്കാനാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് അതേപോലെത്തന്നെ കലാരംഗത്തും അതുപോലെത്തന്നെ ഈ മൊബൈൽ മൊബൈലിൻ്റെ വരവോടുകൂടി ഇതുപോലെ യൂട്യൂബ് ആയി ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് നടന കാര്യങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ടുമൊക്കെ ധാരാളം കലാകാര കലാരംഗത്തേക്ക് ധാരാളം പേർ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഈ യൂട്യൂബർ രംഗത്തും സഞ്ചാരി ഹാസ്യനടനെന്നുള്ള രംഗത്തുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി കിട്ടുവാൻ ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം